പഴയ കാലത്ത് പേപ്പറ് വായിച്ചും പിന്നെ റേഡിയോയിൽക്കൂടെ കേട്ടും പിന്നെ അങ്ങനെയുള്ള ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെയായിരുന്നു ഞാൻ എൻ്റെ ഒക്കെ കാലത്ത് അറിഞ്ഞുകൊണ്ടിരുന്നത് എല്ലാ ദിവസയും ഞങ്ങളൊക്കെയാണേൽ മനോരമ പത്രം എല്ലാ ദിവസവും വരുത്തി വായിക്കുകയും ചെയ്യുമായിരുന്നു ഇന്നത്തെക്കാലത്ത് ഫോണ് ഫോണ് ആണ് മനുഷ്യരേറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഫോണിൽക്കുടെ എൽ പെട്ടന്ന് വാർത്തകളും അതിൻ്റെ പടങ്ങളും എല്ലാം കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ടി വി ആണേലും ടി വീൽക്കൂടെ എല്ലാ വാർത്തകളും നമുക്ക് കാണാനും എന്താ അതുകൊണ്ട് മനുഷ്യർക്ക് വായന കുറയുന്നു മറ്റ് ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളെപ്പറ്റി അറിയാന് ഇപ്പം ഈ മൊബൈൽ ഫോൺ വന്നതിൽ പിന്നെ പിള്ളേർക്കായാലും മൊബൈൽ ഫോണേൽ പ്ലേ കളിയാ പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒക്കെ കാണുക അതേപ്പറ്റി അതിറ്റ് അനുകരിക്കുക പിന്നെ ഡ്രഗ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാനുള്ള ഇത് കിട്ടുക പ്രായഭേദമന്യേ പിള്ളേർക്ക് പ്രായമായവരോടും അല്ലാത്തവരോടും ഒക്കെ പെരുമാറേണ്ടത് എന്ന് പോലും അറിയത്തില്ലാത്ത ഒരു കാലഘട്ടമാണ് ഇപ്പം പേടിച്ചിട്ട് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റുകേല ഡ്രഗ്സ് ഒക്കെ അടിച്ചേച്ച് വയസ്സായ പ്രായമുള്ള തള്ള കാരണവന്മാരെ ദുരുപയോഗം ചെയ്യുന്നു അങ്ങനെയൊക്കുയുള്ള ഒരു ചള്ള് കാലമാണ് പിന്നെ കുറച്ച് കുറേ നല്ല കാര്യങ്ങളും ഉണ്ട് പിന്നെ ഈ ഈ അശ്ലീല ചിത്രങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുകൂടെ ഒത്തിരി പിള്ളേരും പിള്ളേരുടെയിൽ ഫോൺ കിട്ടിയാൽ ചെയ്യുന്നത് അപ്പം പിന്നെ കുറേ ഇങ്ങനെ ചിത്രങ്ങൾ വരയ്ക്കാനും ഓരോ സംഗതികൾ ഉണ്ടാക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിള്ളേർക്ക് ഉപകാരപ്പെടുന്നും ഉണ്ട് പിന്നെ പഠിപ്പിക്കുന്ന കാര്യങ്ങളായാലും ഫോണിൽ നോക്കി അത് എഴുതാനും അത് അതിൻ്റെ ബാക്കി ചെയ്യാനും ഒക്കെ കൊച്ചുങ്ങൾക്ക് സാധിക്കുന്നുണ്ട് അതൊരു നല്ല കാര്യമായി അത്രയും ക്ലാസ്സിൽ പോയില്ലേൽപ്പോലും ഇങ്ങടെ ഞാൻ അന്നന്നുള്ള കാര്യങ്ങൾ പിള്ളേർക്ക് പഠിക്കാനും അങ്ങനെയൊക്കെ കഴിയും ആ പ്രായമായവർക്കായാലും ഒരു കുർബാന കാണാനും ഇത് പള്ളി ഈ പള്ളിയിൽ ഒന്നും കുർബാന ഇല്ലാത്ത സമയത്ത് കുര്ബാന കാണാനും അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ടി വി യിൽ പണ്ട് അതൊന്നും ഇല്ലായിരുന്നു ഒത്തിരി ദൂരം നടന്നും പെറുക്കിയൊക്കെയാ മനുഷ്യർ കഷ്ടപ്പെട്ടുമൊക്കെ ആയിരുന്നു പള്ളിയിലൊക്കെ പൊക്കോണ്ടിരുന്നത് ഇന്നിപ്പം ഏത് വാർത്തയും ആ നിമിഷത്തിൽ തന്നെ അറിയാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അത് കാണുവാനും എല്ലാ എല്ലാവര്ക്കും നമുക്ക് കഴിയുന്നുണ്ട് ഈ കൊച്ചു പിള്ളേർക്കൊക്കെയാണേൽ ഫോണ് നന് ഉപയോഗിക്കാൻ അറിയുകേയും ചെയ്യാം എങ്ങനെ ഉപയോഗിക്കാനെന്നാ അവരുടെ കൈ കിട്ടിയാൽ അതേത്